എൻ്റെ പ്രൊഡക്ട് എന്നു വച്ചാൽ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിൻ്റെ പോസിറ്റീവ് ഫ്രിഡ്ജിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നു വച്ചാൽ നമുക്ക് എന്തെങ്കിലും സാനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ തണുപ്പിക്കാൻ വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി തക്കാളി അല്ല തക്കാളിയൊക്കെ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള സാനങ്ങളൊക്കെ നമുക്ക് കേടു കൂടാതെ വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചൂടാക്കി നമുക്ക് പാഴായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നു ചൂടാക്കി എടുക്കാനൊക്കെ ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച് തണുപ്പിച്ചിട്ട് കേടാവാതെ പിറ്റേ ദിവസം എടുക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വച്ച വെള്ളം ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കിട്ടും നമുക്ക് നല്ല സുഖമായിരിക്കും വെള്ളം കുടിക്കാൻ ചൂടുള്ള സമയത്ത് സുഖമായിട്ട് ഇതാക്കാം പിന്നെ അതുപോലെതന്നെ ഫ്രൂട്സ് ഒക്കെ ഫ്രൂട്സ് എല്ലാം എന്താ നല്ലോണം ഫ്രിഡ്ജിൽ വച്ചാൽ കേടുകൂടാതെ നല്ലോണം നല്ല തണുത്ത നല്ല തണുത്ത് കിട്ടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഫ്രിഡ്ജിന്